ഹലോ ഇത് സാഗർ ഹോട്ടൽ അല്ലേ ഞാൻ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ മന്തിയും പിന്നെ രണ്ട് അൽഫാമും പിന്നെ ഒരു കുബ്ബൂസൊക്കെയായിട്ട് അ ആ അത് പ്രിപ്പെയർ ആയിട്ട് വരാൻ ഇനിയും ലേറ്റ് ആകുമോ അ ആ ആ അത് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഞാൻ കാരണം പിന്നെ ആയോ എന്താണ് അവസ്ഥ എങ്ങനെയാണ് ഡെലിവറി കൃത്യ സമയത്ത് എത്തുമോ അതൊക്കെ അറിയണമായിരുന്നു അതുകൊണ്ട് വിളിച്ച് അന്വേഷിച്ചതാണ് കാരണം ഞങ്ങൾക്ക് കുറച്ച് കസിൻസ് വരുന്നുണ്ടായിരുന്നു സമയം ഇത്ര സമയത്ത് ഫുഡ് കഴിക്കാം എന്ന് വെച്ചിട്ടായിരുന്നു ഡിന്നർ അതുകൊണ്ട് ചോദിച്ചതാണ് ഓക്കെ നിങ്ങൾ ഒരു എ അവർ ഒരു ഏഴ് മണിക്കുള്ളിൽ നിങ്ങൾ എങ്ങനെ ആണെങ്കിലും ഒന്ന് ഡെലിവറി ചെയ്തു തരണേ